ഹലോ ഇത് രഞ്ജിനി ക്യാബ്സല്ലേ ഞാൻ നിങ്ങളുടെ ക്യാബിന്ന് ഇന്നലെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടിണ്ടായിരുന്നു പാലക്കാട് നിന്ന് തൃശൂര് വരെ പോകാൻ വേണ്ടിട്ടേ നമ്മുടെ സംസാരിക്കുന്ന സമയത്തേ ഇത്ര പൈസയാണെന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളതിന് ഓക്കെ എന്നും പറഞ്ഞിണ്ടായിരുന്നു പക്ഷെ ഞാനിവിടന്ന് ക്യാബ് ബുക്ക് ചെയത് തൃശ്ശൂര് എത്തി ആ ഞാൻ പറഞ്ഞ പൈസയാണ് കൊടുത്തത് പക്ഷേ ഡ്രൈവറ് എന്റെ അടുത്ത് പറഞ്ഞ പൈസയിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് ആവശ്യപ്പട്ടേ അപ്പോൾ അപ്പത്തന്നെ ഞാനത് പറ്റില്ല്യ എന്ന് പറയൂ ചെയ്തു പക്ഷേ ഡ്രെ ഡ്രൈവറ് എൻ്റടുത്ത് കുറെ തർക്കിച്ചോണ്ടേയിരുന്നു പറ്റില്ല്യ ഇങ്ങനെയാണ് എനിക്ക് കൂടുതൽ പൈസ തന്നേ പറ്റൂന്ന് ഡ്രൈവറ് കുറെ നേരം എൻ്റടുത്ത് തർക്കിച്ചു പക്ഷേ ഞാൻ തീർത്തു പറഞ്ഞു പറ്റില്ലാന്ന് തന്നെ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ഉറപ്പിച്ച നിങ്ങളുട് കമ്പനിന്ന് ഉറപ്പിച്ച പൈസ തന്നെ കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ കൂടാതെ എക്സ്ട്രാ പണമൊന്നും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലല്ലോ അപ്പം എങ്ങനെ ഡ്രൈവറ് ഏൻ്റടുത്ത് ഇങ്ങനെ എക്സ്ട്രാ പണം ആവശ്യപ്പെടാൻ പറ്റും അത് അത് നിങ്ങളെന്തായാലും ഒന്ന് അയിന് വേണ്ടി ആക്ഷൻ എടുത്തേ പറ്റൂ